ആ ആരോഗ്യ കേന്ദ്രങ്ങൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ഇവിടെ അടുത്തു തന്നെ ഉണ്ട് അവിടുന്ന് എല്ലാ വിധത്തിലുള്ള സേവനങ്ങളും ജനങ്ങളിലേക്ക് ലഭിക്കുന്നുണ്ട് അത് ഏകദേശം ഈ നാട്ടിലെ അടുത്തു തന്നെ ആയിട്ട് പറയാം ആദ്യം തന്നെ എടുത്തു പറയാവുന്ന ആരോഗ്യ കേന്ദ്രം അതാണ് പിന്നെയുള്ളത് ആശുപത്രികളായിട്ട് ഉള്ളത് പട്ടണങ്ങളിലാണ് അത് രണ്ട് കിലോമീറ്ററിനു അകത്ത് തന്നെയാണ് പെട്ടന്ന് എത്തിച്ചേരാൻ പറ്റുന്ന രീതിയിലുള്ള ആശുപത്രികൾ തന്നെയാണ് അതിലെ ഗവൺമെന്റിന്റേതായിട്ട് ഒന്നാണ് ഉള്ളതെങ്കിലും പ്രൈവറ്റ് ആയിട്ടുള്ള സോ ഇഷ്ടം പോലെ ആശുപത്രികൾ ഉണ്ട് അതിൽ വളരെ മികച്ച രീതിയിലുള്ള സേവനങ്ങളും ലഭിക്കുന്നുണ്ട് ഗവൺമെന്റിൻ്റെ ഒന്നേയുള്ളൂ എങ്കിലും അതിൻ്റെ സൗകര്യങ്ങളും സേവനങ്ങളും എല്ലാവരും ഉപയോഗപ്പെടുത്തുന്നുണ്ട് കൂടുതലും ആൾക്കാർ സ്വകാര്യ മേഖലയിലെ ആശുപത്രികളാണ് പോകുന്നത് ഒന്നാമത് കാത്തു നിൽക്കാനുള്ളതും സൗകര്യങ്ങളുടെ കുറവുമൊക്കെയാണ് നമ്മുടെ ഗവൺമെന്റിൻ്റെ ആശുപത്രികളിലേക്കുള്ള ആൾക്കാരുടെ പോക്ക് കുറയാനുള്ള ഒരു കാരണമായിട്ട് തോന്നിയിട്ടുള്ളത് ഇഷ്ടംപോലെ ആശുപത്രികൾ എത്താവുന്ന എത്തിച്ചേരാൻ പറ്റുന്ന രീതിയിൽ തന്നെ ആണെങ്കിലും വളരെ മികച്ച രീതിയിലുള്ളത് ആണെന്ന് പറയാൻ പറ്റുന്ന ഉള്ള ഒരു ആശുപത്രി ഇവിടെയില്ല എന്നതാണ് യാഥാർത്ഥ്യം കുറച്ചും കൂടി അത്യാസനം ആണെങ്കിൽ അടുത്തുള്ള ജില്ലകളിലേക്കും അടുത്തുള്ള സംസ്ഥാനത്തിലേക്കും പോകേണ്ടതെന്നുള്ള ഒരു അവസ്ഥയാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് ഉള്ളത് അത്രയും കൂടി മികച്ചതാവാനുള്ള ഒരു സൗകര്യം ഇവിടുത്തെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചു കൂടി എളുപ്പമാകുമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട് സാമ്പത്തികമായിട്ടും മാത്രമല്ല ആരോഗ്യമായിട്ടും ആരോഗ്യപരമായിട്ടുള്ള മേഖലകളിൽ കൂടി ഈ ജില്ലയിൽ ഈ പ്രദേശത്ത് കുറച്ചും കൂടി ഉയർച്ച ആവശ്യമുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട് ഒരു ജീവിയുടെയും ആരോഗ്യം ഒരു ഓരോ മനുഷ്യൻ്റെയും ഒരു അത്യാവശ്യ ഒരു സൗകര്യങ്ങളിൽ ആരോഗ്യ മേഖലയും വളരെ പ്രധാന പങ്കു വഹിക്കുന്നുണ്ട് അതുകൊണ്ടു തന്നെ എളുപ്പത്തിൽ എത്തിയാൽ മാത്രം പോരാ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള രീതിയിലേക്ക് മാറേണ്ടിയിരിക്കുന്നു ഈ പ്രദേശത്തുള്ള ആരോഗ്യ മേഖലകൾ അടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും ലഭിക്കുന്ന സൗകര്യങ്ങളെല്ലാം സേവനങ്ങളെല്ലാം ജനങ്ങൾക്കും ലഭിക്കുന്നുണ്ട് പക്ഷേ അതിനൊക്കെ ഒരു പരിധിയുണ്ട് എന്നുള്ളതാണ് ഓരോ ജീവിതശൈലി രോഗങ്ങളൊക്കെ കണ്ടുപിടിക്കാനും ചെറിയ രീതിയിലുള്ള അവബോധനം നൽകാനും ഒക്കെ അവർ ശ്രമിക്കുന്നുണ്ട്